എൻ്റെ ജീവിതകാലത്തിലെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ പണ്ടെന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ നമുക്ക് മൊബൈൽ ഫോൺ കാര്യങ്ങളൊന്നും കൂടുതലായിട്ട് ഉണ്ടായിരുന്നില്ല ആകെ ഉണ്ടായിരുന്നത് ഒരു നോകിയെൻ്റെ ഒരു കട്ടപ്പെട്ടി ഫോൺ ആണ് ഇപ്പോൾ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലായിടത്തും നോക്കിയാലും ഭയങ്കരമായിട്ട് ടച്ച് കാര്യങ്ങൾ അന്നെന്ന് പറഞ്ഞാൽ ഇന്റർനെറ്റ് എന്നൊക്കെ പറഞ്ഞുകഴിഞ്ഞാൽ ആകെ കിട്ടുന്നത് നൂറ് എം ബി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആയിരിക്കും പിന്നെ അത് കഴിഞ്ഞിട്ടാണ് പിന്നെ കാമറ ഉള്ള ഫോൺ എന്നൊക്കെ പറഞ്ഞിട്ട് നോക്കിയ തന്നെ ഇറക്കിയ ടച്ച് അതായത് കീപാഡ് ഉള്ള ക്യാമറേൻ്റെ സെറ്റുകൾ കാര്യങ്ങളൊക്കെ ആ ടൈമിൽ ഒക്കെയാണ് ഇറങ്ങിയത് അതെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ റെയർ ആണ് അങ്ങനെ ആരുടെ അടുത്തും മൊബൈൽ ഫോൺ കാര്യങ്ങളൊക്കെ ഇല്ലാത്ത സമയമായിരുന്നു പിന്നെ നമ്മളെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ആ ടൈമിൽ ഒക്കെ ഈ കംപ്യൂട്ടർ ഒക്കെ കാണുന്നത് പറഞ്ഞുകഴിഞ്ഞാൽ സ്കൂളിലും സ്കൂളിലൊരു വലിയ നമ്മുടെ പഴയ ടി വി പോലത്തെ കമ്പ്യൂട്ടർ കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നെ എന്ന് പറഞ്ഞാൽ പിന്നെ ഇന്റർനെറ്റ് കഫേകളൊക്കെ വന്ന് തുടങ്ങി അങ്ങനെയാണ് സാങ്കേതിക വിദ്യ കുറച്ചും കൂടെ മാറിയത് അതായത് ഇപ്പം മൊബൈലിലൂടെ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നെറ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇന്റർനെറ്റ് കഫേകളിൽ കഫേകളിൽ പോയിട്ട് ഓരോന്ന് സെർച്ച് ചെയ്യും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കഫേ വഴിയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത് പിന്നെ പിന്നെ മാറി മാറി എല്ലാവരുടെ കയ്യിലും ഏകദേശം ടച്ച് ഫോൺ മെല്ലെ ഇറക്കിയതെന്ന് പറഞ്ഞാൽ സാംസങ് ആണ് സാംസങ്ങിന്റെ ടച്ച് ഫോൺ ആണ് മെല്ലെ വന്നത് അതിനകത്ത് ചെറിയ രീതിയിലുള്ള ഇന്റർനെറ്റ് കാര്യങ്ങളൊക്കെ വന്നു അതായത് നൂറ് രൂപയ്ക്ക് റീചാർജ് ചെയ്തുകഴിഞ്ഞാൽ ഈ അഞ്ഞൂറ് എം ബി ഫ്രീ അഞ്ഞൂറ് എം ബി കിട്ടും അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ട് നെറ്റുകൾ കാര്യങ്ങൾ വന്നു ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ എല്ലാവരുടെ കയ്യിലും ടച്ച് ഫോൺ ഇല്ലാത്ത ഒരാളുപോലും ഇല്ല പിന്നെ എല്ലാവർക്കും എന്താണ് പറയുക ഇപ്പോൾ ജിയോ ഒക്കെ വന്നതുകൊണ്ട് ഫുൾ ആയിട്ട് മാറി ഇരിക്കുകയാണ് അപ്പം എല്ലാവരുടെ കയ്യിലും ടച്ച് ഫോൺ ജിയോൻ്റെ സിം ജിയോൻ്റെ എന്ന് പറഞ്ഞുകഴിഞ്ഞാഎൽ അവർക്ക് നൂറ്റി ഇരുന്നൂറ്റമ്പത് അടച്ചുകഴിഞ്ഞാൽ ഒരു ജി ബി നെറ്റ് ഡെയിലി കിട്ടും അപ്പം അങ്ങനത്തെ കാര്യങ്ങളൊക്കെ വന്നതുകൊണ്ട് ഇന്റർനെറ്റിൻ്റെ വലിയൊരു വളർച്ച ആണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്